എനിക്ക് തോന്നണത് ഇക്കാലത്ത് എല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നൃത്തം എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ഡാൻസാണ് കാരണം പണ്ടത്തെ ആൾക്കാരൊക്കെ പഠിക്കാൻ കൂടുതലും ആഗ്രഹിച്ചിരുന്നത് കുച്ചിപ്പുടി ഭരതനാട്യം മോഹിനിയാട്ടം ഇങ്ങനത്തേയൊക്കെ ആയിരുന്നു എന്നാൽ അങ്ങനത്തെ ഡാൻസുകളിലോക്കെ അങ്ങനത്തെ നൃത്തങ്ങളിലക്കെ ഓരോരോ നൃത്ത ചുവടുകളിലും അതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ട് എന്നാൽ വെസ്റ്റേൺ ഡാൻസ് കളിക്കുന്ന സമയത്ത് എല്ലാ നൃത്ത ചുവടിനും അത് അതിൻ്റെതായ അങ്ങനെ എല്ലാ ചുവടിനും അർത്ഥോന്നുമില്ല എന്നു വെച്ചുകഴിഞ്ഞാൽ ആർക്ക് വേണേലും കണ്ടിരിക്കാം അത് കാണാൻ തന്നെ നല്ല രസമാണ് അതോണ്ട് ഇപ്പം കുറെ സ്ഥലങ്ങളിൽ എവിടെ പോയാലും ഏത് രാജ്യത്തു പോയാലും എല്ലാവരും കളിക്കാൻ വേണ്ടി എല്ലാ എല്ലാ രാജ്യത്തും പോയാലും ഈ കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം ഒന്നും ഉണ്ടാവില്ല എന്നാലും എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലത്തു പോയാലും കാണാവുന്ന ഒരു നൃത്തമാണ് ഈ വെസ്റ്റേൺ ഡാൻസെന്ന് പറയുമ്പോൾ അതോണ്ടുതന്നെ എല്ലാവർക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള എല്ലാവരും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വെസ്റ്റേൺ ഡാൻസാണ് പിന്നെ വെസ്റ്റേൺ ഡാൻസ് പഠിക്കുമ്പം നമുക്കത്രേം ഫ്ലെക്സിബിളിറ്റി കിട്ടും നമ്മുടെ ശരീരം അത്രത്തോളം നന്നായിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും അത്രത്തോളം അനങ്ങി കളി നല്ല ഒരു ഫ്ലെക്സിബിളിറ്റി കിട്ടാവുന്ന ഒരു നൃത്തം നൃത്തരീതിയാണ് ഈ വെസ്റ്റേൺ ഡാൻസെന്ന് പറയുമ്പോൾ അതോണ്ടാണ് ഇപ്പൊഴത്തെ എല്ലാവരും ഇതിനെ തെരഞ്ഞെടുക്കുന്നത് പിന്നെ പിന്നെ പറയാനാണെങ്കിൽ പണ്ടൊന്നും ഈ വെസ്റ്റേൺ ഡാൻസ് പഠിപ്പിക്കുന്ന അധികം സ്ഥലങ്ങളുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പം അത് പഠിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ അക്കാഡമിക്സ് ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ് നമ്മുടെ കേരളത്തിലായിക്കോട്ടെ കേരളത്തിലുള്ള ഓരോ ജില്ലകളിലായിക്കോട്ടെ എല്ലാവിടെയും ഇത് പഠിപ്പിക്കാൻ വേണ്ടീട്ട് കുറെ അക്കാഡമിക്സ് തന്നെയുണ്ട് ഇതോണ്ടക്കെ ഇവിടത്തെ എല്ലാ പിള്ളേരും ഈ വെസ്റ്റേൺ ഡാൻസ് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് കാണാനും നല്ല രസമാണ് അത് കളിക്കണത് സമയത്ത് നമ്മൾ ഫുള്ള് രസിച്ചും കൊണ്ട് നമുക്ക് നല്ല സന്തോഷമാണ് കളിക്കുമ്പോൾ അത് കഴിഞ്ഞ് കാണാനായാലും പ്രത്യേകിച്ച് നമ്മൾക്ക് അതിനെക്കുറിച്ചു വിവരോന്നും വേണ്ട കാണുന്ന സമയത്തെ എല്ലാവർക്കും കാണികൾക്കൊക്കെ ഇഷ്ടമാവും